എൻ്റെ സഹോദരിയായാലും മകളായാലും സുഹൃത്തായാലും എത്രയോ ഉയർന്ന വിദ്യാഭ്യാസം അവർക്കു ലഭിക്കട്ടെ എന്നാണു ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എളുപ്പത്തിൽ ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റിയ ഏതു കാലത്തും ആ ശമ്പളം വാങ്ങാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലയിൽക്കയറാൻ പറ്റിയ ഉദ്യോഗം അവർക്ക് എത്രയും പെട്ടെന്നു നല്ല പതിനെട്ട് വയസ്സു കഴിഞ്ഞതും പി എസ്സി എഴുതി അതിലേക്കു കയറാൻ പറ്റണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു ശേഷം അവർക്ക് പ്രൈവറ്റായിട്ട് ഡിഗ്രി എടുക്കുകയോ മറ്റുള്ള ഉയർന്ന വിദ്യാഭ്യാസങ്ങളെടുക്കുകയോ ചെയ്യാം പതിനെട്ട് വയസ്സിനുള്ളില് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ജോലി കിട്ടാവുന്ന ഗവൺമെന്റ് സെക്ടറില് കിട്ടാവുന്ന ജോലികൾ കിട്ടാവുന്ന രീതിൽ അവരായിത്തീരണമെന്നാണു ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഹയർ എജ്യൂക്കേഷൻ അവർക്കു കിട്ടിയാൽ അത്രയും നല്ല സന്തോഷം അതല്ല നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ട് അതിനേക്കാളുയർന്ന ഒരു തലത്തിലേക്കുള്ള ജോലികൾക്ക് അപേക്ഷവച്ച് അങ്ങനെ ഉയർന്നു പോകുവാനും അവർക്കു സാധിക്കുമാറാകട്ടെ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു അതില് പെൺകുട്ടികൾക്കു വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണു ഞാൻ പറയുന്നത് ഇന്നത്തെ തലമുറയില് ഒരു ഏറ്റവും കൂടുതല്ല് വിദ്യാഭ്യാസം അവർക്കു നൽകണം ഏതു സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ഈ വിദ്യാഭ്യാസവും ഈ ജോലിയും അവർക്ക് ഒരു രക്ഷയാകുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം